പത്തൊമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്താറ് പത്ത് രണ്ടായിരം ഇരുപത്തിയൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരിത്തി തൊണ്ണൂറ്റി അഞ്ച് നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറ് പത്ത് രണ്ടായിരത്തി രണ്ട്